ഞാൻ മിഷൻ വിവർത്തനങ്ങളും ഗൂഗിൾ മാപ്പുകളും ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷ ഇപ്പം ഏതാ ഇപ്പം സ്പാനീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് അല്ലെങ്കി ജപ്പനീസ് അല്ലെങ്കിൽ ഹിന്ദി അങ്ങനെയൊക്കെയങ്ങ് ഭാഷ എന്ന് കേൾക്കുമ്പോൾ എനിക്കത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വിവർത്തനങ്ങൾ മിഷൻ വിവർത്തനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം കൃത്യമാണെന്ന് ചോദിച്ചാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അത് ഏകദേശം ഒക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെത്തന്നെ ട്രാൻസ്ലേറ്റൈസ് ചെയ്ത് തരാൻ അതിന് സാധിക്കുന്നുണ്ട് ഇപ്പം എ ഐ ഒക്കെ വന്നതിന് ശേഷം അയിനൊക്കെ മുന്നെ ആണെങ്കിൽ ഒരുപാട് തെറ്റുകൾ അതിനകത്ത് വരാറുണ്ടായിരുന്നു ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം എ ഐ അങ്ങനെ വളരെ നല്ല രീതിക്ക് ഹെല്പ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെത്തന്നെ ഗൂഗിൾ മാപ്പുകളാണെങ്കിൽ അത് ഞാൻ ഒരുപാട് കേസുകൾ കേട്ടിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് വഴിതെറ്റി എത്തേണ്ട സ്ഥലത്ത് എത്താതെ മറ്റു പല സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നതിനെ പറ്റി പക്ഷെ എനിക്കിതുവരെ അത് അതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ ഗൂഗിൾ മാപ്പ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ അറിയണം അത് യൂസേജ് ചെയ്യാൻ അറിയാതെ യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം കാരണം എനിക്കത് യൂസ് ചെയ്യാൻ അറിയാം അതുകൊണ്ടുതന്നെ എനിക്കിതുവരെ ഒരിക്കലും ഒരു തെറ്റ് അത് അതുമൂലം ഉണ്ടായിട്ടില്ല കാരണം അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീസെൻറർ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അപ്പം ആ ലൊക്കേഷനിൽനിന്ന് നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാണെന്ന് നമ്മൾ വഴി അവിടെ കാണിച്ച് തരും അതുവഴി പോയാൽ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തും പിന്നെ റീസൻററ് ചെയ്യാതിരിക്കുമ്പോളാണ് ഇങ്ങനെത്തെ ഒരു ബഗ്കള് ഉണ്ടായി വരുന്നത് അപ്പം അത് നമ്മുടെ ഒരു മിസ്റ്റേക്കാണ് നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് റീസൻററ് ചെയ്യണം റീസൻററ് ചെയ്യണം എന്ന് നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയുന്നതാണ് നമ്മളിത് കേൾക്കാതെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഈ മിഷൻ വ്യവസ്ഥങ്ങളും ഗൂഗിൾ മാപ്പ്കൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഹൺഡ്രഡ് പെർസെൻറ് കൃത്യമാണെന്ന് ഞാൻ പറയുന്നില്ല അത് മെഷിൻസാണല്ലോ അപ്പം അതിനും തെറ്റ് സംഭവിക്കാം അപ്പം ഒരു അമ്പത് ശതമാനവും അല്ല അതിൽ കൂടുതൽ ഒരു എമ്പത്തഞ്ച് എമ്പത്തഞ്ച് ശതമാനവും ഇതൊക്കെ കറക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത് പിന്നെ ഒരു പതിനഞ്ച് ശതമാനം അങ്ങേയറ്റം കൂടിപ്പോയാൽ മിസ്റ്റേക്ക്സ് ഉണ്ടാവാം അത് കാരണം എന്താണെങ്കിലും മിസ്റ്റേക്കുകള് ഉണ്ടാവാമല്ലോ അപ്പോൾ അതിനെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി അപ്പം ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ നമുക്കിതെല്ലാം ഉപയോഗിക്കാൻ ഒരു ഇതുവരെ നമുക്കും അറിയാമായിരിക്കണം അപ്പം നമുക്കൊന്നും അറിയത്തില്ലാതെ അത് ഉപയോഗിച്ചാൽ എങ്ങനെ പോയാലും മിസ്റ്റേക്സ് ഉണ്ടാവും അത് ചിലപ്പോൾ നമ്മുടെ കയ്യിലെ കുറ്റംകൊണ്ടാവാം അപ്പം ഇതൊക്കെ പഠിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അപ്പം ഇത് പഠിക്കാനാണെങ്കിൽ തന്നെ പല പല ഓപ്ഷൻസുകളുണ്ട് നമ്മളിപ്പം ജസ്റ്റ് യൂട്യൂബിൽ കയാറിയാൽ അടിച്ചു കൊടുത്താൽ മതി എങ്ങനെ ഇത് ഉപയോഗിക്കണമന്ന് അപ്പം അതൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞ് തരും അപ്പം നമ്മളതുപോലൊക്കെ ഉപയോഗിച്ചാൽ നമക്ക് അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും കൃത്യതയോടെ ഉപയോഗിക്കാനും പറ്റും അപ്പം അതിനകത്ത് വലിയ കുഴപ്പം ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല കൃത്യമാണ് മുമ്പേ പറഞ്ഞ പോലെ ഒരു എമ്പത്തഞ്ച് ശതമാനം കൃത്യമാണ് ഇത് അപ്പം എനിക്കതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്